കിൻഡിൽ പോലുള്ള ഉപകരണങ്ങൾ വായിക്കാറില്ല അതിന് ഒരു ചെറിയമായ ഗ്രാഹ്യം മാത്രമേ ഉള്ളു അത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് പിന്നെ ഇപ്പോൾ പ്രായോഗികമായിട്ട് അത് നടക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഹാർഡ് കോപ്പിയിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ പേപ്പർ ഇതിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഒക്കെ പിന്നെ ഇല്ലായ്മ പെടുത്തിക്കൊണ്ടാണ് ഈ കിൻഡിൽ അത് വായിച്ചാൽ അത് ഉപോയോഗിക്കുക ഉപയോഗിച്ചാൽ കിട്ടുന്ന അതിൻ്റെ അകത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ അത് ഒരു ഇപ്പോഴത്തെ ലാപ്ടോപ്പിൽ നിന്നും ടാബിൽ നിന്നും അങ്ങനെയൊക്കെ ഒരു ഇലക്ട്രിക്ക് ഉപകരണത്തിൽ നിന്നുള്ള കാര്യമാണ് അതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ അത് പിന്നെ അവ ഹാർഡ് കോപ്പിയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തി ന്യൂസ്പേപ്പറുകളിലൂടെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ കിട്ടുന്നു പിന്നെ ഈ വനനശീകരണം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഈ പിന്നെ കിൻഡിൽ പോലെയുള്ള ഉപകരണങ്ങളിൽ നിന്നും വായനയിൽ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അതിന് പിന്നെ ഒരു കറണ്ട് ഇപ്പം ഇലക്ട്രിസിറ്റി ഫീൽഡിൽ നിന്നുള്ള ഒരു മാധ്യമം മാധ്യമം ഉൾക്കൊണ്ട് അതിൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്നും അതിന് ഹാർഡ് കോപ്പിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്നും രണ്ടും വ്യത്യാസമുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ മൂല്യത്തിലൊക്കെ ആ ആണല്ലോ ഇപ്പം ശാസ്ത്രം വളർന്നു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇലക്ട്രിക്കലായിട്ടും എല്ലാം ശാസ്ത്രീയമായ രീതിയിലുള്ള വളർച്ചയിൽ പോവുമ്പോൾ മനുഷ്യനും അതു ആൾക്കാരും അതുപോലെ രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് പിന്നെ നീങ്ങണം എന്നുള്ള അറിവും ബോധ്യവുമൊക്കെ വയ്ക്കണം എന്നുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടായിരിക്കും ഈ കിൻഡില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നടക്കുന്നത് ന്യൂ ജനറേഷന് അത് അതൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് അതൊക്കെ ആവശ്യമായിരിക്കാം പക്ഷെ ഒരു ന്യൂസ്പേപ്പറിൽ നിന്നോ ഒക്കെ അത് ജീവിതത്തിൽ എല്ലാവർക്കും ഒന്ന് എപ്പോഴും ഉപകാരപ്രഥമോ ഒന്നും ആകണമെന്നില്ല അതിൻ്റെ പിന്നെ അതിനെ കുറിച്ച് കൂട്യമായ ഗ്രാഹ്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ പിന്നെ പഴയ തലമുറക്കാർക്ക് ഒന്നും ഉണ്ടാകണമെന്നും ഇല്ല അപ്പം എല്ലാ ആവശ്യങ്ങൾ എല്ലാ ഇപ്പോൾ പിന്നെ പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയും ജീവിതം പിന്നെ കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അത് എല്ലാം വ്യത്യസ്തപ്പെട്ടു കൊണ്ട് ഇരിക്കുന്ന ഈ സമയം കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ചു കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോവേണ്ടത് പക്ഷെ ശാസ്ത്രം വളരുക വളർന്നു കൊണ്ടിരിക്കുന്ന ഇതിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ നമുക്ക് എല്ലാം ഉപകാരപ്പെടുമായിരിക്കാം എന്നാൽ ഉപകാരപ്പെടുന്നില്ലാതെയും വന്നേക്കാം ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ജനറേഷൻ്റെ ഇപ്പോഴത്തെ പുതിയ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒക്കെ വച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഭാഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇലക്ട്രിക്കലായിട്ട് ഉള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലൂടെ എല്ലാം മുന്നോട്ട് പോയി ജീവിതം മുന്നോട്ട് ആകാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ പിന്നെ പഴമയിലോട്ട് പഴമക്കാരുടെ അതായിട്ടുള്ള ആ അറിവിലേക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള പുരോഗമനവും വളർച്ചയും ഒക്കെയെ ഉണ്ടാവുകയുള്ളു എപ്പോഴും ന്യൂ ജനറേഷനെ അനുബന്ധിച്ചു കൊണ്ടാണ് ഇപ്പോഴത്തെ ശാസ്ത്രീയമായ പഠനങ്ങൾ പിന്നെ വിദ്യാഭ്യാസ പരമായിട്ടുള്ളതും എല്ലാം ഇപ്പോഴത്തെ അങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം ജീവിതത്തിൽ നല്ലതാണെങ്കിലും ഇത് ഉപകാരപ്രദവും ആണ്